ഏഴ് ലക്ഷത്തി അറുപത്തി ഒന്പതിനായിരത്തി മുന്നുറ്റി എഴുപത്തി രണ്ട് ഒമ്പത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് നാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തിഅഞ്ഞൂറ്റി അൻപത് എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആറു ലക്ഷത്തി എ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞുറ്റി ഇരുപത്തി എട്ട്